ഒരു ഗ്രാമീണ കുടുംബത്തിൽ ജനിച്ച ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റു പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് ഗായത്രി ജപവും ദൈവ ത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിനുശേഷം അമ്പലത്തിൽ പോവുകയും ഇതെല്ലാം പതിവുള്ളതാണ് എന്നാൽ വിവാഹം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ വിവാഹം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് മൂന്നു ദിവസം നീണ്ട കല്യാണത്തിൽ വിവാഹത്തില് വരൻ വധുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് ഒരു നല്ല ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് അതിൽ വരന കാശിക്കയയ്ക്കുന്നതും അതിൽ ഊഞ്ഞാൽ ആട്ടുന്നതും വധുവിൻ്റെ കൈ കുമ്പിളാക്കി അതു പിടിച്ച് അച്ഛൻ കൊടുക്കുന്നതും ഇതെല്ലാം ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്